ആ പറയൂ ആ ആ ആ എത്ര ദിവസമായി തുടങ്ങിയിട്ട് എന്നിട്ടും കുറവില്ല അവർ പാരസെറ്റമോളൊക്കെ തന്നില്ലേ ആ ആ കഴിക്കുന്നുണ്ടോ എത്ര നേരം കഴിക്കുന്നുണ്ട് രാത്രി മാത്രം അല്ലേ ആ ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കുന്നില്ലേ ആ ആ മേലും കയ്യും വേദനയൊക്കെയുണ്ടോ ആവിയൊക്കെ പിടിക്കുന്നുണ്ടോ എന്നിട്ടും കുറവില്ലെ

വിക്സ് ഇട്ടിട്ടാണോ ആവി പിടിക്കുന്നത് ആ എന്നിട്ടും കുറവില്ലെ ആണല്ലേ നിങ്ങളെത്ര ദിവസം മുമ്പാണ് കാണിക്കാൻ വന്നത് ആണോ ആ എന്നാൽ ഒന്ന് നല്ലോണം ഒന്ന് ബ്ലഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമോ പിന്ന അതുപോലെത്തന്നെ നല്ലോണം ചൂടുവെള്ളമൊക്കെ കുടിക്ക് പിന്നെ അതുപോലെത്തന്നെ നല്ലോണം പാരസെറ്റമോൾ ഇത് ആവി പിടിക്കുക അത് കഴിഞ്ഞിട്ട് പാരസെറ്റമോള് മൂന്ന് നേരം തന്നെ കുടിച്ചോ എന്നിട്ടും ഇനിയും പനി ഇതെല്ലം ചെയ്തിട്ടും പനി കുറവില്ലെങ്കിൽ ഒന്നുകൂടി ഹോസ്പിറ്റലിലേക്ക് വന്നേക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അത് മാത്രമേ ഉള്ളൂ അല്ലേ ആ അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഒക്കെ ഒന്ന് ചെയ്തു നോക്ക് കേട്ടോ എന്നിട്ടും കുറവില്ലെങ്കിൽ ഒന്നുകൂടി ഹോസ്പിറ്റലിലേക്ക് വാ ഓക്കെ ശരി